അപ്പോൾ സ്കൂളിൽ പഠിക്കുമ്പോൾ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട വിഷയം എന്നൊക്കെ പറഞ്ഞ് കഴിഞ്ഞാൽ മാത്സ് തന്നെയായിരുന്നു കാരണം എൻ്റെ മാത്സ് ടീച്ചറിനെ കാണാൻ അടിപൊളിയായിരുന്നു സോ അതുകൊണ്ടാണ് ഞാൻ കണക്ക് ഇഷ്ടപ്പെടാൻ കാരണം ക്ലാസ്സിലുള്ള എല്ലാ ചെക്കൻമാരും ആ ടീച്ചറിനെ തന്നെയാണ് വായിൽ നോക്കിക്കൊണ്ടിരുന്നത് പിന്നെ ഞാൻ മാത്രമായിട്ട് മാറാൻ ചാൻസില്ലല്ലോ അതുകൊണ്ട് തന്നെ എന്താ പറയുക മാത്സ് ടീച്ചറിനെ വായിനോക്കാനെക്കെ ആയിട്ടായിരുന്നു ഞാൻ മെയ്നായിട്ടും മാത്സ് ക്ലാസ്സില് ഇരുന്നോണ്ടിരുന്നത് പിന്നെ എന്നെ സംബന്ധിച്ചെടത്തോളം എന്താ പറയുക ക്ലാസ്സില് മാത്രല്ല ഓൾ മോസ്റ്റ് സ്കൂളിലെ തന്നെ ഏറ്റവും വലിയ ഒരു ഒഴപ്പനായിട്ടാണ് എന്നെ എല്ലാവരും കണ്ടോണ്ടിരുന്നത് പിന്നെ ടീച്ചേഴ്സിനൊക്കെ നമ്മളെ ഒരു പ്രത്യേക കാര്യമായിരുന്നു കാരണം ഇപ്പഴും ഓർത്തിരിക്കുന്ന ഒരു സ്റ്റുഡൻറ്റാണ് ഞാൻ എന്നാണ് എല്ലാവരും പറയുന്നത് ഇപ്പഴും ചെന്ന് കഴിഞ്ഞാലും ഓൾ മോസ്റ്റ് എൻ്റെ എല്ലാ ടീച്ചർമാർക്കും എന്നെ ഓർമ്മയിണ്ട് ചെന്ന് കണ്ടാ തന്നെ നമ്മളോട് ഇങ്ങോട്ട് പേര് പറയുന്നൊരു ടീച്ചേഴ്സാണ് ഇപ്പഴും എനിക്കുള്ളത് അപ്പോൾ അങ്ങനെയൊക്കെ വച്ച് നോക്കുമ്പോൾ ആ ടീച്ചറിനെയൊക്കെ നമ്മള് ഇപ്പോ ശരിക്കും മിസ്സ് ചെയ്യുന്നുണ്ട് കാരണം അങ്ങനെ ഒരു ടീച്ചറിൻ്റെക്കെ കൂടെ പഠിക്കാൻ എന്താ പറയുക പഠിപ്പിക്കാനവർക്ക് പഠിപ്പിക്കാൻ നമ്മളെയൊക്കെ കിട്ടിയത് അവരുടെ ഒരു ഭാഗ്യമാണ് അതുപോലെ നമ്മുക്കതുപോലെ ടീച്ചേഴ്സിനെ കിട്ടിയത് നമ്മുടെ ഒരു ഭാഗ്യമായിട്ടാണ് ഞാൻ കരുതുന്നത്